എനിക്ക് ഏറെ പ്രിയപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കായികമെന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്രിക്കറ്റ് ഒരു പതിനൊന്നംഗ ടീം ആണ് അതിൽ കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ടോസ് ചെയ്യണം ടോസ് ചെയ്ത് ഹെഡ്സ് ആണോ ടെയില്സ് ആണോ എന്നറിഞ്ഞ് ഏതാണോ അത് തീരുമാനിച്ച് അത് കഴിഞ്ഞിട്ട് ആ ആദ്യം ഒരു ടീം ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങും അത് ഓപ്പോസിറ്റ് ഉള്ള ടീം ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും ബോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പിന്നിംഗ് നമുക്ക് ബോൾ എറിയുന്നവർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇന്ന പിച്ച് പിച്ചിലിത്ര സ്പീഡിൽ എറിയുന്നത് പോലെ തന്നെ സ്പിൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അവര് ഔട്ട് ആകാതെ നിൽക്കണം അത് വലിയൊരു കാര്യമാണ് ഔട്ട് ആവാതെ അവർ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യണം ബാറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് മാക്സിമം ഒരു സ്കോർ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇപ്പം ഒരു രണ്ടാമത് രണ്ടാമതാരാണോ ബാറ്റ് ചെയ്യാന് കയറുന്നത് അവര്ക്ക് അടിച്ച് അടിച്ചെടുക്കാൻ അപ്പം ആരാണ് ബോൾ ബാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര്ക്ക് ജയിക്കണമല്ലോ എറിയുന്നവര്ക്ക് അവർ അവരെ തോൽപ്പിക്കുവേം വേണം അങ്ങനെയാണ് കളിയുടെ ഓരോ നീക്കമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം അതിന് പല തരത്തിലുള്ള തന്ത്രങ്ങളുണ്ട് തന്ത്രങ്ങള് എന്ന് പറയുമ്പം ഇപ്പം എന്താണ് പറയുന്നത് ബൗണ്സ് എറിയാന് പറ്റും ബൗണ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് എന്താപറയാ ഭയങ്കര സ്പീഡിലായിരിക്കും അത് വര്ന്നത് അതുപോലെതന്നെ എല് ബി ഡബ്ല്യു എല് ബി ഡബ്ല്യുന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മുട്ടിന് താഴെ മുട്ടിന് താഴെ വന്ന് ബോൾ ടച്ച് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് സ്റ്റമ്പിൽ ഡി എസ് ഡി ആർ എസ് ഒക്കെ വെച്ചിട്ട് നോക്കും അവർ അപ്പം എന്താണ് പറയുക അപ്പീൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എന്താണ് ഔട്ട് ആണോ ഔട്ട് അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു തന്ത്രം തന്നെയാണ് അതൊക്കെ എറിയുന്ന ആളുടെ കയ്യിലാണ് ഔട്ട് ആക്കുന്ന ആളുടെ ഒരു ഇത് ഇരിക്കുന്നത് പിന്നെ ഔട്ട് ആവാതെ മാക്സിമം സിക്സും ഫോറും അടിക്കുന്നതാണ് ആരുടെ കഴിവ് ബാറ്റേഴ്സിന്റെ കഴിവ് അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത് ഫോർ പോവുക പിന്നെ ഫീള്ഡേഴ്സ് ഫീള്ഡേഴ്സിനൊക്കെ ഒരുപാട് ഉണ്ട് ഫോർ ഒന്നും പോവാതെ നോക്കണം സിക്സ് അടിച്ചാൽ അത് ക്യാച്ച് ചെയ്ത് ഔട്ട് ആക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഇപ്പം പറയുക അതെല്ലാം ഇവരുടെ കയ്യിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീം വര്ക്ക് ആണ് ബാറ്റ് ചെയ്യുമ്പോഴും കൂടെ രണ്ട് പേരാണ് ബാറ്റ് ചെയ്യുന്നതെങ്കില് പോലും എന്താണ് മറ്റേ ആൾ ക്രീസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇപ്പം റൺ ഔട്ട് ആവാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സെക്യൂർ ചെയ്യണം അങ്ങനെയൊരു ടീം വര്ക്ക് ആയിട്ടാണ് ക്രിക്കറ്റിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നടത്തുന്നത് പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുമ്പം എന്താണ് ആരവങ്ങൾ അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലുള്ള ആള്ക്കാരുടെ ആവേശം എല്ലാം നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ക്രിക്കറ്റിനെക്കുറിച്ച് പറയാനാണെങ്കില് ഒരുപാടുണ്ട് പറയാന് ക്രിക്കറ്റിനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ അപ്പം അതൊക്കെയാണ് അവരുടെ ഒരു തന്ത്രങ്ങളെക്കുറിച്ച് പറയാനാണെങ്കില് ഇത്രയൊക്കെയാണ് ഒരു എറിയുന്ന ആളുടെ കയ്യിലും അടിക്കുമ്പോൾ ബാറ്റ് ചെയ്യുന്ന ആളുടെ കയ്യിലും ഒക്കെയാണ് ആ ഒരു കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത്